ആ ഞങ്ങൾ പാചക വീഡിയോ അതേപാടെ അനുകരിക്കുന്നൊന്നുമില്ല ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഞങ്ങളുടെ ഭക്ഷണ സാധനങ്ങളാണ് ഞങ്ങള് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ പൂർവ്വികര് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്ന അതേ രീതിയിൽ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കള് നമ്മളെ ആ ആഹാരങ്ങള് ഓരോന്നും പാകം ചെയ്യുന്ന അതേ രീതികൾ നമുക്ക് പഠിപ്പിച്ച് തരികയും പിന്നെ ഇപ്പം ഞങ്ങൾ തന്നെ കുറയൊക്കെ അത് ചെയ്ത് പിന്നെ നമ്മുടെ സ്വന്തമായിട്ട് ആഹാരങ്ങള് പാകം ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പഴത്തെ ഈ രീതി അനുസരിച്ച് നമ്മുടെ മാപ്പും മാതാപിതാക്കൾക്ക് പ്രഷറും ഷുഗറും ഒക്കെ ആയി തുടങ്ങിയല്ലോ അപ്പോൾ അവൾക്ക് അവർക്ക് മധുരം കുറച്ചും ഉപ്പ് കുറച്ചും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊടുക്കുന്നു പിന്നെ കൊടുക്കുന്നു അതുപോലെ കുട്ടികൾക്കാണെങ്കിലും പിന്നെ മസാലയും അതുപോലെ എരിവ് ഒക്കെ കുറച്ച് അവർക്ക് കഴിക്കത്തക്ക രീതിയില് അവർക്ക് ഒരുവിധം സ്വാദിഷ് സ്വാദ് കൂടുതൽ കിട്ടത്തക്ക രീതിയില് വീട്ടിൽ തന്നെ ഭക്ഷണങ്ങള് ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ നമ്മുടെ പിന്നെ ഇവിടെ തന്നെ പച്ചക്കറി ആയാലും നമ്മുടെ വീടുകളിൽ തന്നെ നട്ട് വളർത്തി പച്ചക്കറി സാധനങ്ങള് പിന്നെ എടുത്ത് പാചകം ചെയ്യുന്നതിനാണു ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്